മനുഷ്യജീവിതത്തിൻ്റെ തുടക്കത്തോളം പഴക്കമുണ്ട് കൃഷിയുടെ ചരിത്രത്തിനും അതായത് മനുഷ്യനെപ്പോഴാണോ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയത് അന്ന് മുതൽ മനുഷ്യൻ ഉപജീവനത്തിനായി കൃഷി ഉപയോഗിച്ചിരുന്നു എന്നർത്ഥം അപ്പോൾ വ്യത്യസ്ത കാലങ്ങളിൽ മനുഷ്യൻ അവൻ്റെ അതിജീവനത്തിനായി കൃഷിയുടെ വ്യത്യസ്ത രൂപങ്ങൾ സ്വീകരിച്ചു ചരിത്രത്തിൻ്റെ പാഠപുസ്തകങ്ങളിലെല്ലാം കാണാം ആദിമ മനുഷ്യൻ മുതല് ഇന്നത്തെ മനുഷ്യൻ വരെ മാറ്റമില്ലാതെ കൊണ്ടുനടക്കുന്ന ഒന്നാണ് കൃഷി പണ്ട് തീരങ്ങളിൽ അവർ കൃഷിക്ക് അനുയോജിച്ച അതായത് ശുദ്ധജലം ലഭിക്കുന്ന സ്ഥലം തേടി സഞ്ചരിക്കുകയും കൃഷി സുഗമമാകുന്ന സ്ഥലങ്ങളിൽ അവർ താമസിക്കുകയുമെല്ലാം ചെയ്തു അതാണ് ഹാരപ്പൻ സിവിലൈസേഷനും മെസപ്പൊട്ടേമിയൻ സംസ്കാരവുമെല്ലാം നമ്മോട് പറയുന്നത് അപ്പോൾ നിലവിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും കൃഷിയുണ്ടെന്ന് എന്ന് നാം തിരിച്ചറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് മനുഷ്യൻ വ്യത്യസ്ത കാലഘട്ടത്തിൽ അതിജീവിക്കാൻ കൃഷിയുടെ വ്യത്യസ്ത രൂപങ്ങൾ ഉപയോഗിച്ചു മനുഷ്യ ജീവന്റെ തുടക്ക കാലഘട്ടത്തിൽ മനുഷ്യൻ ഉപയോഗിച്ച അതായത് ആദിമ മനുഷ്യൻ ഉപയോഗിച്ച രൂപമല്ല അല്ലായിരിക്കും ഒരുപക്ഷെ ഇപ്പോഴുള്ള മനുഷ്യൻ ഇപ്പോഴുള്ള ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ മനുഷ്യന്മാർ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് ഇവർ ഇവർക്ക് കൃഷിയും അതുപോലെ വിളകളുടെ ഗുണവും ഉൽപാദനക്ഷമതയുമൊക്കെ വർദ്ധിപ്പിക്കാൻ ഒരുപാട് സാങ്കേതികവിദ്യകൾ അവർക്ക് ചെയ്യാൻ സാധിക്കും അതായത് ഡ്രോണുകളും മറ്റും ലഭ്യമായ കാലമാണ് അതിനാൽ അവർക്ക് അവരുടെ വിളവെടുപ്പിൻ്റെ പൂർണ്ണമായ രൂപം അതിൽ ഡ്രോൺ ഉപയോഗിച്ച് നല്ലത് അതുപോലെ പാകമാകാത്തത് എല്ലാം തിരിച്ചറിയാൻ സാധിക്കും അതായത് ജി പി എസും സെൻസർ അതുപോലെയുള്ള കാര്യങ്ങള് വെച്ച് അവർക്ക് കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങൾ അവർക്ക് തിരഞ്ഞ് കണ്ടെത്താൻ സാധിക്കും അതായത് കൃഷി ഏറ്റവും ജി പി എസ്സും സെൻസറും ഉപയോഗിച്ച് കൃഷി ഏറ്റവും സുഗമമാകുന്ന സ്ഥലങ്ങള് അവർക്ക് കൃഷി ചെയ്യാനും അതുപോലെ മറ്റ് ആർട്ടിഫിഷ്യൽ ടെക്നോളജികൾ ഉപയോഗിച്ച് അവർക്ക് ഏത് കാലഘട്ടത്തിലാണ് ഈ മണ്ണിൽ കൃഷി നന്നാവുകയെന്നും ഏത് രൂപത്തിലുള്ള കൃഷിയാണ് അതായത് ഏത് വിളകളുടെ കൃഷിയാണ് നന്നാവുകയെന്നുള്ളതുമൊക്കെ ഏ ഐ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അതായത് കൃഷി കേന്ദ്രീകരിച്ച് ഒരുപാട് ആർട്ടിഫിഷ്യൽ ടെക്നോളജികൾ വരുന്നുണ്ട് അതെല്ലാം നമ്മൾ നമ്മുടെ വിളയിലേക്കും വിളവെടുപ്പിലേക്കും നമ്മൾ കൊണ്ടെത്തിക്കുമ്പോൾ അത് നമ്മുടെ രൂപങ്ങളെ തന്നെയാണ് അതായത് നാം ആശ്രയിക്കുന്ന രൂപങ്ങളെ തന്നെയാണ് അത് മെച്ചപ്പെടുത്തുന്നത് അതുപോലെ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അതായത് ചെറിയ കാര്യങ്ങളുടെ രൂപത്തിൽ നമുക്ക് ഇൻറർനെറ്റ് ഓഫ് തിങ്സ് ഉപയോഗിക്കുമ്പോൾ സ്മോൾ തിങ്ങ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അടിയിലുള്ള വെള്ളത്തിൻ്റെ അതായത് മണ്ണിൻ്റെ മോയ്സ്ച്ചറും അതായത് നനവും മറ്റും തിരിച്ചറിയുകയും അപ്പോൾ ഏത് രൂപത്തിലുള്ള കൃഷി ഉപയോഗിക്കണമെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു